ഞാനൊരു സുപ്രധാനമായ തീരുമാനം എടുക്കേണ്ടി വന്നത് എൻ്റെ മകളുടെ എക്സാമിനെക്കുറിച്ചാണ് അതായത് എൻ്റെ മകൾക്ക് പി ജി കഴിഞ്ഞു നെറ്റ് കോച്ചിങ്ങിനു പോകണം ഞാൻ താമസിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നെറ്റ് കോച്ചിങ്ങ് ഇല്ല എൻ്റെ മകൾ മൈക്രോ ബയോളജി ആണ് കഴിഞ്ഞത് അതുകൊണ്ടുതന്നെ അതിനുള്ള കോച്ചിങ്ങ് സെൻ്റർ ഒന്നുകിൽ കണ്ണൂർ അല്ലെങ്കിൽ തലശ്ശേരി അല്ലെങ്കിൽ കോട്ടയം ഈ ഭാഗത്ത് ഉണ്ട് ഉള്ളൂ അവിടെയാണെങ്കിൽ അവിടെ പോയി നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം അപ്പോൾ ഇത്ര ദൂരത്തേക്ക് പോകാനുള്ള ഒരു അസൗകര്യവും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു വിഷമവും ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് നാൾ അതിനു വേണ്ടി അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കണ്ടേ അല്ലെങ്കിൾ മാറി താമസിക്കേണ്ടി വരില്ലേ എന്ന് ആലോചിച്ച് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഓൺലൈൻ ക്ലാസ് അത് സക്സ്സസ്സ് ആയില്ല അതുകൊണ്ടുതന്നെ പിന്നീട് എനിക്ക് മകളെ കണ്ണൂർ കൊണ്ടുപോയി ചേർക്കേണ്ടി വന്നു അപ്പോൾ മകളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഉപദേശ പ്രകാരമാണ് ഞാനവളെ നെറ്റ് കോച്ചിങ്ങ് കണ്ണൂരിൽ കൊണ്ടു ചേർത്തത് അതിനു വേണ്ടി അവരുടെ മകളുടെ സീനിയേർസ് സീനിയർസായി പഠിച്ച കുട്ടികളോട് അവളെ അവളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് നെറ്റ് എക്സാം പാസ്സായവരോട് എന്നിവരോടെല്ലാം ഞാൻ ഉപദേശങ്ങൾ സ്വീകരിച്ചു അത് അനുസരിച്ചാണ് മകളെ നെറ്റ് കോച്ചിങ്ങിനു വേണ്ടി കണ്ണൂർ കൊണ്ടുപോയി ചേർത്തതും ഓൾറെഡി മകളിപ്പോൾ കോഴ്സ് ചെയ്തു കൊണ്ടിരിക്കുകയുമാണ്